ആ അങ്ങനെ ഇന്ന തരത്തിൽ എന്നൊരു സംഗീതം ഇല്ല എനിക്ക് അവസരോചിതമായി സംഗീതം കേൾക്കാനാണ് ഇഷ്ടം ഇപ്പോൾ സങ്കടമൊക്കെ പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ മേലോഡീയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും അങ്ങനെയൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് എന്താണ് മെലഡി ഒത്തിരി സങ്കടമുള്ള പാട്ടുകൾ കേൾക്കാണ്ടിരിക്കാൻ ശ്രമിക്കും കുറച്ചു എന്താണ് അടിച്ച്പൊളി പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് മനസിന് ഒരു സന്തോഷവും നമ്മുടെ ആ ചിന്തകളിൽ നിന്ന് മനസൊന്ന് മാറാനായിട്ടും അത് സഹായകരമാകും പിന്നെ ഭയങ്കര സന്തോഷമോ അല്ലെങ്കിൽ ഇത് ഇരിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പാട്ടുകൾ കേൾക്കും അപ്പം ഇന്ന ഇതെന്നെന്നുമില്ല ഏതാണോ നമ്മൾ എങ്ങനെ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ ആണോ അതിനനുസരിച്ചുള്ള പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം പഷേ എങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ മ്യൂസിക്കുകൾ ഉണ്ട് അത് പക്ഷേ ഇന്നാ ക്യാറ്റഗറിയിൽ വരുന്ന മ്യൂസിക്ക് എന്നല്ല പല പല ക്യാറ്റഗറീസിൽ വരുന്ന മ്യൂസിക്കാണ് എനിക്ക് വേർഡ്സിനേക്കാളും എന്നെ കൂടുതൽ അട്രാക്റ് ചെയ്യുന്നത് താളങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു നല്ല താളമോ നല്ല ഒരു മ്യൂസിക്കാണെങ്കിൽ അത് വേർഡ്സ് വേർഡ്സിനേക്കാളും നല്ല ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു പാട്ടു കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് അടിപൊളി പാട്ടാണ് ഇത് അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടും എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടു കൊണ്ടേ ഇരിക്കും